എനിക്ക് തയ്യലില് എന്നുവച്ചാലതൊരു ജോലിയായിട്ട് ഒരു വരുമാനം അതായത് ജോലിയായിട്ട് തന്നെ മുന്നോട്ടു കൊണ്ടുപോകാനാണ് ഞാനാഗ്രഹിക്കുന്നത് അതിനായിട്ട് എനിക്ക് പുതിയ പുതിയ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാം ധരിക്കുന്നതെന്നു വച്ചാല് പുതിയ പുതിയ തരത്തിലുള്ള ഡ്രസ്സുകൾ ആണ് അപ്പോള് അതനുസരിച്ചിട്ട് തയ്ക്കാന് പറ്റുന്ന രീതിയില് ഒരു പരിശീലനം നേടിയെടുത്ത് അതൊരു ജോലിയായിട്ട് തന്നെ മുന്നോട്ടു കൊണ്ടുപോകാനാണ് ഞാനാഗ്രഹിക്കുന്നത് അതിനായിട്ട് ഇപ്പോള് വേറെ എവിടെയെങ്കിലും ഒരു കോച്ചിങ് സെന്ററില് പോയിട്ട് അത് പരിശീലനം നേടിയെടുത്തിട്ട് അത് ചെയ്ത് മുന്നോട്ട് പോകുവാന് തന്നെയാണ് ഞാനാഗ്രഹിക്കുന്നത് അതിനായി അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവര്ത്തനങ്ങളാണ് ഇനി മുതല് ഞാൻ ചെയ്യാന് പോകുന്നത്